എടാ എവിടെ നീ ഏ കൊട്ടാരക്കരയിൽ എന്ത് പരിപാടി ആ ഡാ ഇവിടാന്നെ ഭയങ്കര മഴ എനിക്കാന്നെ ഒരു കള്ളടിക്കാൻ തോന്നുന്നു എങ്ങോട്ട് പോകണം ഇവിടെങ്ങും വേണ്ട എങ്ങോട്ടേലും എത്ര ദൂരയാണേലും കുഴപ്പമില്ല നല്ല കള്ള് കിട്ടണം ദൂരേന്ന് പറയുമ്പം നമുക്ക് ആലപ്പുഴ സൈഡ് പിടിക്കാം ആലപ്പുഴ കുട്ടനാട് സൈഡ് ആ ഞാൻ പറഞ്ഞു തരാം അതിൻ്റെ പേരെനിക്കറിയാം കുട്ടൻപിള്ളയുടെ കൊഞ്ച് ഷാപ്പ് കുട്ടൻപിള്ളയുടെ കൊഞ്ച് ഷാപ്പിൻറ്റാത് നല്ല പോർക്ക് കിട്ടും ആ പന്നി പന്നി വെള്ളപന്നീടെ ഇറച്ചി ഭയങ്കര ടേസ്റ്റാ അതിന്

ആ കുട്ടൻപിള്ളയുടെ നല്ലതാണോ ആ ആന്നാന്ന് അയാൾ ആ പന്നീടെ കണക്കാ ഇരിക്കുന്നത് വെളുത്ത് ആ ഡാ അയാളെ കണ്ട ആ അയാൾക്ക് അതോണ്ടാ കുട്ടൻപിള്ളയുടെ പന്നിഷാപ്പെന്നിട്ടെ ശെ കുട്ടൻപിള്ളയുടെ എന്തോന്ന് ആ ഷാപ്പ് അ ആ പന്നിറോസ്റ്റും അയാളേം കണ്ട ഒരേകണക്കിരിക്കും മസാല തേച്ചങ്ങ് കിടത്തിയാൽ മതി ഗരംമസാലയും നല്ല മുള്ള് കുരുമുളകും ഇട്ട് അവിടെന്നാ കള്ളുംകൂടി അടിച്ചാൽ സെറ്റാ ആ ഇപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് പോയാൽ മതിയോ നമുക്കൊരു ഉച്ച ഉച്ചര കഴിഞ്ഞു അപ്പോഴത്തേനും പോവാം അടിപൊളി ആയിരിക്കും നമ്മളിതുവരെ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ ആ സൈഡ് ആ പിന്നെ വേറെ എവിടൊണ്ടടാ വേറെ വേറെയെന്ന് പറയുമ്പം പിന്നെ കറി വേറെ ഏതൊക്കെ ഉണ്ട് നല്ല കരിം കരിമീൻ പൊള്ളിച്ചത് നല്ല നെയ് റോസ്റ്റ് കക്കയാണോ വേണ്ടത് അ പന്നി മസ്റ്റാ പന്നി അവിടെ പോയിട്ട് കുട്ടൻപിള്ളയുടെ പന്നി കഴിച്ചില്ലെങ്കിൽ മോശമാണ് ഓക്കെ ഓക്കെ ഞാൻ എന്തുവാണേലും നോക്കട്ട് വേറെ എന്തേലും ഉണ്ടോന്ന് വേറെ പുതിയ വെറൈറ്റി സാധനങ്ങളായിട്ട് അവിടെ കുട്ടൻപിള്ളയുടെ പന്നി റോസ്റ്റ് ഉണ്ട് അപ്പോൾ ഓക്കെ ഞാൻ വിളിക്കാം എന്തായാലും